ആ ഇത് ഞാൻ വടവത്തൂരിൽനിന്നാണ് വിളിക്കുന്നതെ ഇത് ഇപ്പം ഹൗസ് കാഞ്ഞിരപ്പള്ളിയിലുള്ള ഫാം ഹൗസ് അല്ലേ അതായത് ഞാൻ വിളിച്ചത് നിങ്ങളുടെ ഫാം ഹൗസിൽ ഒത്തിരി ഈ പ്രോഡക്റ്റ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് കേട്ടു അപ്പം അതൊന്ന് അറിയാനും അതിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് അവിടുന്ന് എടുക്കാനും ആയിരു ആ ഓക്കെ ഓക്കെ അതായത് ഞാൻ വിചാരിച്ചത് പാല് നമുക്ക് റെഗുലർ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കാണുമോ പാല് ആ ആ പാല് റെഗുലർ ആയിട്ട് നമുക്ക് ഞാൻ ഇപ്പം പറയുന്നത് നമ്മൾ ആദ്യം ഒരാഴ്ച്ച നമ്മൾ നിങ്ങളുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് നോക്കിയിട്ട് എല്ലാ ദിവസവും അതായത് നമുക്ക് ആവശ്യമുള്ളയിടത്തോളം കാലം ഉപയോഗിയ്ക്കാം എടുക്കാം എന്നുള്ള വിചാരത്തിലാണ് ഇരിക്കുന്നത് അത് ഇപ്പം നമുക്ക് ഒരു ദിവസം ഒരു നൂറ് ലിറ്ററോളം പാല് വേണം നൂറ് ലിറ്ററോളം പാല് നിങ്ങൾക്ക് ഞങ്ങളുടെ അവിടെ എത്തിക്കാനായിട്ട് പറ്റുമോ രണ്ട് നേരത്തേക്ക് ഉള്ളതാണ് ആ ഓക്കെ അത് മതി ആ ഓക്കെ പിന്നെ അതേപോലെത്തന്നെ നമുക്ക് തൈര് ഉണ്ടോ തൈര് എടുക്കാൻ വേണ്ടിയിട്ട് തൈര് എനിക്ക് ഞാൻ എനിക്ക് ആഴ്ച്ചയിൽ രണ്ട് ദിവസം തൈര് വേണം പിന്നെ അവിടെ നമുക്ക് ബട്ടർ ഉണ്ട് എന്നല്ലേ പറഞ്ഞത് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറ് വെള്ളിയാഴ്ച്ച ദിവസങ്ങളിൽ ബട്ടറ് വേണം അത് വ്യാഴാഴ്ച്ച വൈകുന്നേരങ്ങളിൽ എത്തിച്ചാലും മതി ഒരു അഞ്ച് കിലൊ അപ്പം വേറെ ഐറ്റംസ്സ് വേറെ വടവത്തൂർ സൈഡിൽ അതായത് കോട്ടയം ഏര്യേല് നിങ്ങൾ വരുമ്പോൾ അവിടെ കൊണ്ടെത്തിച്ചാലും മതി വേറെ കടകളിലേക്കൊക്കെ വരുമ്പഴേ ഉം ഓക്കെ ചേച്ചി നമുക്കെ നമ്മൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് കാണാൻ നിങ്ങളുടെ ഫാമിലൊന്ന് വന്നെല്ലാം കാണാനുള്ള സൗകര്യം ഉണ്ടോ അതിനാളുകൾ വരുന്നൊക്കെ ഉണ്ടോ ആ ഓക്കെ ഓക്കെ ചേച്ചി നമ്മുടെ ഈ പ്രോഡക്റ്റിൽ മായമൊന്നും ചേർത്തിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ എല്ലാ സ്ഥലത്തും അങ്ങനെ ആണല്ലോ മായം ചേർത്ത് ഇങ്ങനെ മനുഷ്യരെ പറ്റിക്കുന്ന പരിപാടി ആണല്ലോ

ആ ഓക്കെ ഓക്കെ ചേച്ചി ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകീട്ട് തന്നെ അവിടംവരെ ഒന്ന് വരാം ഫാമിൽ ആ എന്റെ ഈ നമ്പർല് വാട്ട്സപ്പുണ്ട് ഈ വാട്ട്സപ് നമ്പരിലേക്ക് നിങ്ങളുടെ ലൊക്കേഷൻ എനിക്കൊന്ന് അയച്ച് തരാമോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് വൈകുന്നേരത്ത് വൈകുന്നേരം അവിടെ എത്താം എന്നിട്ട് നമുക്ക് സംസാരിച്ച് നിങ്ങളുടെ പ്രോഡക്റ്റ് നമ്മൾ ഒരാഴ്ച്ച അത് അവിടുത്തെ വന്ന് കണ്ടിട്ട് പ്രൊഡക്റ്റ് നമ്മൾ ഒരു ആഴ്ച്ചയോളം ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറേ നാളത്തേക്ക് അതായത് ലൈഫ് ലോങ്ങ് അതുപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മേടിക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കാം ഓക്കെ ആ ഫസ്റ്റില് വരുമ്പത്തേക്കും നമ്മുടെ എവിടെയാണ് സ്ഥലം എന്നുള്ള ഇവ എത്തിക്കേണ്ട സ്ഥലം എവിടെയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അഡ്രസ്സ് ഞങ്ങൾ തരാം ഓക്കെ ഓക്കെ ചേച്ചി താങ്ക് യു